കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു പൂരമാണ് തൃശ്ശൂരിലെ പൂരം അതായത് പൂരങ്ങളുടെ പൂരമാണ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് തൃശ്ശൂര് അതായത് ആ അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആന അതിൻ്റെ കുട കുടമാറ്റം തന്നെയാണ് അതായത് രണ്ട് ടീം തമ്മിൽ മത്സരമാണ് കുട മാറ്റത്തിൽ അത് തന്നെ ഈ പത്തും പതിനാലും സെക്ഷൻ കുടകൾ തന്നെയാണ് അതില് വരുന്നത് കുടകൾന്ന് പറഞ്ഞ നല്ല രസമുള്ള പരിപാടിയാണ് എന്താന്ന് വച്ചാൽ എൽഈഡി ബൾബ് വച്ച് തോരണം അത് പന്ത്രണ്ട് ആനകളാണേൽ ആ പന്ത്രണ്ട് ആനകളും ഒരു മോഡല് കുട ആദ്യം വിരിച്ച് കഴിഞ്ഞാൽ അതിനെ തോൽപിക്കാൻ വേണ്ടി അടുത്ത ടീം മ വേറെയൊരു മോഡൽ കുട അവർ നിവർത്തും അതും പറയുന്ന പോലെ നല്ല രീതിയിൽ നല്ല രസമുള്ള കുടകൾ അങ്ങനെ ഈ രണ്ട് അതായത് തൃശ്ശൂരിലെ രണ്ട് ടീമാണ് അതായത് ഏ രണ്ട് സ അമ്പല സമുദായങ്ങൾ തമ്മിലാണ് ഈ കുടമാറ്റത്തിന് മത്സരം നടക്കുന്നത് അത് എന്ന് പറഞ്ഞാൽ അര മുക്കാൽ മണിക്കൂർ തന്നെ ഉത്സ ആ ഇത് തന്നെ വരുന്നുണ്ട് പിന്നെ വരുന്നത് വെടിക്കെട്ടാണ് നല്ല രീതിയിലുള്ളൊരു വെടിക്കെട്ടാണ് തൃശ്ശൂര് പൂരത്തിന് വരുന്നത് ഇപ്പൊൾ കുറച്ച് കുറവായത് കൊണ്ട് ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ വന്നത് കൊണ്ട് ഇപ്പോൾ അധികം ഇല്ല എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തൃശ്ശൂര് പൂരത്തിന് വെടിക്കെട്ട് നടത്തുന്നുണ്ട് പിന്നേ ഈ പറയുന്ന പോലെ എല്ലാ ആൾക്കാരും പൂരം കാണാൻ ഏ വരുന്ന ആൾക്കാർ ആണ് അതായത് വിദേശികളേ വേറെ മതത്തിലുള്ളവർ അതായത് തേക്കുംകാട് മൈതാനത്തിലാണ് ഈ പൂരത്തിൻ്റെ ഒരു ആവേശം അതിലാണ് ഇവർ ഈ പൂരം തന്നെ നടത്തുന്നത്